കുട്ടികൾക്ക് ഇങ്ങനെത്തെ കാര്യങ്ങളെല്ലാം ആദ്യംതന്നെ അവരുടെ വീടുകളിൽനിന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പോൾ സ്കൂളുകളിൽ ചെല്ലുമ്പം കൃഷി എന്താണെന്നും മൃഗസരക്ഷണം എന്താണെന്നും ചെറുകിട ബിസിനസ്സിനെപ്പറ്റിയൊക്കെ എന്താണെന്നുമൊക്കെ സ്കൂളുകളിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ് അതുമാത്രമല്ലാതെ അവരുടെ ഇപ്പം വീടുകളിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ അങ്ങനെ ആരേലൊക്കെ ഉണ്ടെങ്കിൽ അവർ അവരിൽനിന്നും ഈ അറിവുകളൊക്കെ നേടിയെടുക്കാവുന്നതാണ് മരപ്പണി കോഴി വളർത്തൽ പശു വളർത്തലൊക്കെ എന്തായാലും അവരുടെ അപ്പൂപ്പൻ്റെയിൽനിന്നും അമ്മൂമ്മമാരിൽനിന്നൊക്കെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് പിന്നെ അതുകൂടാതെ വിളകളെക്കുറിച്ച് പറ്റിയും മറ്റ് തൊഴിലുകളിനെക്കുറിച്ചും അവർ പഠിക്കാൻ നിരവധി വഴികളാണുള്ളത് അതെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ അറിവുകളൊക്കെ നേടിയെടുക്കാവുന്നതാണ്